ആരാണ് ആ ഇരിക്കൂട്ടോ ഇല്ല ഇല്ല എടുത്തിട്ടില്ല ആണോ ജനറൽ ഇൻഷുറൻസ് ആണോ ആ ഓക്കെ എത്രയാ വർഷത്തേക്ക് ഉള്ള ഇൻഷുറൻസ്

അതെ അല്ലേ എങ്ങനെ ആണ് ആ

ആ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഒക്കെ വന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലില് ചിലവിന് നമ്മള് കിട്ടില്ലേ അതിന് ക്ലെയിമ് ചെയ്യാൻ പറ്റില്ല എങ്ങനെ ആണ് ആ കേരാ എങ്ങനെയാ അത് മന്ത്ലി പേയ്മെൻറ്റ് ആണോ അതോ ആ ബില്ല് പോയിട്ട് മേടിച്ച് വെക്കോ എത്ര രൂപ വെച്ച് തരും അതെ അല്ലേ ആ ആ ഓക്കെ ഓക്കെ ഫ്രീ ഇങ്ങനെ എപ്പഴ് ക്ലെയിമ് എങ്ങനെ കിട്ടും

ഓ നമുക്ക് പെട്ടെന്ന് ഒരു മാര്യേജ് കാര്യങ്ങളോ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എമൗണ്ട് എടുക്കാൻ പറ്റുമോ എന്നാൽ അപ്പോൾ എൻ്റെ കൈയ്യിൽ ഉള്ള ഒരു രസീത് കണ്ടാല് എനിക്ക് തരുമോ ഇപ്പോൾ നമ്മള് നമ്മൾ അവിടുന്ന് ഓഫീസിലോട്ട് വരണോ അതോ നിങ്ങള് വീട്ടിലോട്ട് വരുവോ ആ ആ എങ്ങനെയാണ് നമ്മള് വീട്ടിൽ ഉള്ളവരോട് ഒന്ന് ചോദിച്ചിട്ട് കൺഫേം ചെയ്ത് വിളിക്കാം ആ ആ ആ ശരി